എനിക്കിപ്പോൾ ഇങ്ങനെ ആയോധകലകളില് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യബോധങ്ങള് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് അങ്ങനെ കരാട്ടേയൊക്കെ പഠിക്കണന്നൊരു ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ലാണ്ട് അതൊന്നും അങ്ങനെ കൃത്യം വ്യക്തായിട്ട് നമ്മള് പഠിക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ കുറെ ആൾക്കാര് ഈ കരാട്ടക്ക് ക്ലാസ്കൾക്കൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് വീട്ടില് നമ്മള് ഈ വീട്ടിലൊക്കെ പോയിട്ട് അച്ഛനു അമ്മയോടൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കൊണ്ട് തന്നെ നമ്മളോട് ഒന്നും പഠിക്കാൻ പോകണ്ട അങ്ങനൊരുതാണ് വീട്ടിൽനിന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരുന്നത്

പോകാനൊന്നും നമുക്ക് കഴിഞ്ഞിരുന്നില്ല അതാണ് മെയിൻ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിലൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക അത് പഠിക്കാനൊക്കെ ശ്രമിക്കുവായിരുന്നെങ്കിലും നമുക്കൊന്നും കഴിഞ്ഞിരുന്നില്ല പിന്നെ നോർമ്മലി എന്താ പറയുക അത്രക്ക് ആയോധനകലകളിലൊന്നും നമുക്കത്ര വലിയ ഇത് കിട്ടിയിട്ടില്ല